വയനാട് ജില്ലയിൽ പൊതുവെ തൊഴിലുകൾ എന്നു വച്ചിട്ടുണ്ടങ്കിൽ സർക്കാർ ജോലിയിലേയ്ക്ക് ആൾക്കാർ കൂടുതൽ അതായത് പി എസ് സി എഴുതി കയറാൻ ആളുകൾ കൂടുതൽ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു ഗവൺമെന്റ് ജോലി എന്ന ഒരു ലക്ഷ്യബോധത്തോടെയാണ് അവർ പഠിച്ച് ഇറങ്ങുന്നത് അങ്ങനെ എൽ ഡിയിലോ എന്തിലെങ്കിലുമൊക്കെ കയറിപ്പറ്റാൻ നോക്കുന്നവരാണ് അതേപോലെത്തന്നെ നമ്മുടെ സാധാരണ തൊഴിൽ മത്സ്യബന്ധനം വളരെ അധികം പ്രചാരത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും കുളം വീട്ടിൽ സ്വന്തമായിട്ട് വയലിൽ സ്വന്തമായിട്ട് കുളം കുഴിച്ച് അതിൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ച് വളർത്തുന്ന ഒരു രീതിയും ഇവിടെ വയനാട്ടിൽ കണ്ട് വരുന്നുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർ സാധാരണ കൂലിപ്പണി കൂലിപ്പണി മുഖ്യമായിട്ട് കെട്ടിട നിർമ്മാണം കെട്ടിട നിർമ്മാണത്തിനും തൊഴിലുറപ്പ് അങ്ങനെയുള്ള പണികളിലൊക്കെ ആൾക്കാർ കുടുതലായിട്ട് വരുന്നുണ്ട് അതായത് ഒരു അതിന് കുറേ സെക്ഷൻ ആണല്ലോ ഒരു വീട് നിർമ്മാണം എന്നു പറയുമ്പം അതിന് ഒത്തിരി ഇതുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് കെട്ടു പണിയെടുക്കുന്നൊരു ടീമാണെങ്കിൽ ടൈലിൻ്റെ പണി പ്ലംമ്പിങ്ങ് വയറിംഗ് പണി വേറൊരാൾക്കാറാണ് അപ്പം എല്ലാം വിത്യസ്തരാണ് കുറേ പേർക്ക് കുറെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ എന്താ പറയുക കോൺട്രാക്ടർ